അനുഷ്ഠാനങ്ങളെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ശബരി ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ശബരിമലയിലെ അനുഷ്ഠാനങ്ങളെ പറ്റിയാണ് ശബരിമല എന്ന് പറയുന്നത് അയ്യപ്പസ്വാമി കുടിയിരിക്കുന്ന സ്ഥലമാണ് ഈ ഏറ്റവും പ്രധാനമായി വൃശ്ചിക മാസത്തിലാണ് അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ദർശനം നടത്തുന്നത് അതിനെ പറ്റി പറയുവാണെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്നത് മോഹിനിയുടെയും ഭഗവാൻ ശിവൻ്റെയും പുത്രനായിട്ടാണ് അറിയ അറിയപ്പെടുന്നത് പിന്നെ ഹരിഹര പുത്രൻ എന്നും എന്ന പേരിലും അറിയപ്പെടുന്നു മണികണ്ഠൻ എന്നൊര് പേരിലും അറിയപ്പെടുന്നുണ്ട് പിന്നെ മോഹിനിയും ശിവനും ൻ്റെയും പുത്രനായി ജനിച്ച അയ്യപ്പനെ പമ്പാ തീരത്ത് ഈ കുട്ടിയെ ശിവനും മോഹിനിയും ഉപേക്ഷിക്കുമ്പോൾ പന്തളം കൊട്ടാരത്തിലെ രാജാവായിരുന്ന രാജശേഖര രാജാവ് അയ്യപ്പനെ സ്വീകരിച്ച് മകനായി വളർത്തുന്നു എന്നാണ് ചരിത്രം അദ്ദേഹത്തിന് വേറെ മക്കൾ ഇല്ലായിരുന്നു അങ്ങനെ രാജാവ് എടുത്ത് വളർത്തി പക്ഷേ രാജ്ഞിക്ക് അയ്യപ്പനോട് പിന്നീടങ്ങ് വിരോധമാവുകയും അത് മനസ്സിലാക്കി അത് മനസ്സിലാക്കിയപ്പോൾ അയ്യപ്പൻ രാജാവിനോട് തനിക്ക് വേണ്ടിയിട്ട് ശബരിമലയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ പറയുകയും അതിൻ പ്രകാരം ക്ഷേത്രം നിർമ്മിക്കുകയും അയ്യപ്പൻ അങ്ങനെ അവിടേക്ക് പോയി എന്നുമാണ് പറയുന്നത് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ ധാരാളം ഭക്തജനങ്ങൾ ദർശനം നടത്തുന്ന സ്ഥലമാണ് ശബരിമല അവിടുത്തെ അനുഷ്ഠാനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നാല്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് പതിനെട്ട് പടി ചവിട്ടി ശബരിമല കയറി ഭഗവാനെ തൊഴണം എന്നാണ് ആചാരം പണ്ടുള്ളവരൊക്കെ ഈ നാല്പത്തിയൊന്ന് ദിവസത്തെ വ്രതം എടുത്തതിന് ശേഷം മാത്രമാണ് പോവുന്നത് ആ വ്രതം എടുക്കുന്ന സമയത്ത് കുടുംബ ബന്ധങ്ങളിൽ നിന്നും എല്ലാം വിട്ട് നിന്ന് മത്സ്യ മാംസാദികളൊന്നും ഉപയോഗിക്കാതെ ഉള്ള വ്രതം അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ പെൺകുട്ടികൾക്ക് ശബരിമലയിൽ പത്ത് വയസ്സ് വരെ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ പിന്നീട് അറുപത് വയസ്സിന് ശേഷം അങ്ങനെയാണ് പറയുന്നത് അതിന് പിന്നെ പുരുഷന്മാർക്ക് അങ്ങനെ ഇല്ല എല്ലാ സമയത്തും പോവാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ധാരാളം ആൾ ആൾക്കാർ ശബരിമലയിൽ വരുന്നുണ്ട് പിന്നെ അതുപോ പിന്നെയുള്ള അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഇത്രയും ആളുകൾ വരുമ്പം എല്ലാവരും പമ്പാ നദിയിൽ സ്നാനം ചെയ്തതിന് ശേഷമാണ് ശബരിമല നട ചവി പടി ചവിട്ടുന്നത് ഇപ്പം ഇത്രയും പേരൊക്കെ ഇത്രയും പേരൊക്കെ ഈ നദിയിൽ കുളിക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഒ ധാരാളം ഈ വസ്ത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ദ നദി ധാരാളം മലിനം ആവുന്നുണ്ട് അത് മൂലമുള്ള രോഗങ്ങളും പല സാംക്രമിക രോഗങ്ങളും അങ്ങനെയും ഉണ്ടാകുന്നുണ്ട് പിന്നെ അനു അനുഷ്ഠാനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്നത് എന്നെ എന്നെ ഒക്കെ സംബന്ധിച്ച് ഞാനൊക്കെ പത്ത് വയസ്സിന് മുമ്പ് രണ്ട് തവണ ശബരിമലയിൽ പോയി അയ്യപ്പസ്വാമിയെ തൊഴുതിട്ടുണ്ട് ഇനിയും നമുക്കൊക്കെ പോവാൻ കഴിയുക എന്ന് പറയുന്നതൊരു അറുപത് വയസ്സിന് ശേഷമാണ് അതിനായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നു